വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വയനാട് നല്ല രീതിയിലുള്ള മാറ്റമാണുണ്ടായത് അവിടുത്തെ നമ്മുടെ കെട്ടിടങ്ങളിൽ നിന്നാണെങ്കിലും പണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓടിട്ട കെട്ടിടങ്ങളും വീടുകളുമൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇപ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എല്ലാം നല്ല രീതിയില് ഇപ്പോൾ എ സി വെച്ച റൂമുകള് നല്ല ടൗണുകള് വൃത്തി വൃത്തി അതായത് നല്ല വൃത്തിയായിട്ടുള്ള ടൗണുകളൊക്കെയാണ് വയനാട്ടില് നമ്മുടെ സുൽത്താൻബത്തേരി ഇപ്പോൾ കൽപ്പറ്റ മാനന്തവാടി ഇനിമാർ കുറേ മാറാനുണ്ടെങ്കിലും ഈ രണ്ട് താലൂക്കുകളിലും നല്ല വൃത്തിയാണുള്ളത് പിന്നെ വ്യാപാരം വ്യാപാരികളുടെ ഒരു നല്ലൊരു മികച്ച സഹകരണം കൊണ്ടും പിന്നെ മത്സ്യബന്ധനം അങ്ങനത്തെ ഇതായത് അതായത് ഇപ്പോൾ കടലില്ലാത്തതുകൊണ്ട് നമുക്ക് പുഴകളിൽ നിന്നാണ് മത്സ്യം പിടിക്കുന്നത് അപ്പം അവിടുന്നുള്ള മത്സ്യബന്ധനവും കാര്യങ്ങളുമൊക്കെ ഇള്ളതുകൊണ്ട് നമുക്ക് വഴിസൈഡിൽ നിന്നിട്ട് നല്ലൊരു മത്സ്യം കഴിക്കണം എങ്കില് പനമരത്തോ അങ്ങനത്തെ എവിടെയെങ്കിലുമൊക്കെ പോയി മത്സ്യം കഴിക്കാം പിന്നെ റിയലെസ്റ്റേറ്റുകാരാണ് കൂടുതലായിട്ടും നമ്മുടെ ഇവിടെ കൂടുതലായിട്ടും നിൽക്കുന്നത് കാരണമെന്ന് വെച്ചുകഴിഞ്ഞാല് അവര് ഓരോ സ്ഥലങ്ങള് ഇപ്പം വയനാട്ടിലെ ചെറിയൊരു ജില്ലയാണ് അപ്പം വയനാട്ടിലത്യാവശ്യം നല്ല സ്ഥലങ്ങളും എല്ലാ കാര്യങ്ങളും റിയലെസ്റ്റേറ്റുകാരുടടുത്ത് പോയിട്ട് നമുക്ക് പറഞ്ഞുകഴിഞ്ഞാല് ഒരു നല്ലൊരു സ്ഥലം റെഡിയാക്കിത്തരും ഇങ്ങനെയൊക്കെയാണ് എന്താ പറയുക വയനാട് നല്ല രീതിയില് മെച്ചപ്പെട്ടത്